നമ്മുടെ നമ്മുടെ ഗ്രാമീണതയുടെ ഒരു ശൈലി അത് ചിലതൊക്കെ കണ്ടില്ലേ ഇപ്പോൾ ആലപ്പുഴ എടുത്തുനോക്ക് അതൊരു എന്താ പറയുക ആലപ്പുഴയിലേ വള്ളംകളി അത് കുറച്ച് ഫേയ്മസ് ആണ് അത് കാലങ്ങളോളം പിന്നിട്ടു ഇപ്പം ഇന്നിപ്പം അവിടെ വെള്ളം കളി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കേ എന്താ പറയുക ഞാൻ അതൊരു സംസ്കാരത്തിനേ നമ്മൾ നമ്മുടെ ആ പാരമ്പര്യത്തിന് ഒക്കേ നിലനിർത്തി കൊണ്ട് പോന്നുകൊണ്ടിരിക്കാ വരും തലമുറയിലേക്ക് പകർന്നു കൊടുത്തു കൊണ്ടിരിക്കാ അപ്പം ഈ കളികളൊക്കേ നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരേ ആകർഷിക്കാനും പ്രേരി അത് ചെയ്യാൻ പ്രേരിപ്പിക്കാനും ഒക്കേ എന്താ പറയുക ഈ പരമ്പരാഗത കളികൾ വല്ലാണ്ട് പങ്കുവഹിക്കുന്നുണ്ട് ഓരോരുത്തർ ആകർഷിക്കുക ഇപ്പം ആറന്മുള വള്ളംകളി അങ്ങനെയൊക്കേ കേട്ട് കഴിയുമ്പോൾ തന്നേ ആ സ്ഥലവും ഫെയ്മസ് ആണ് ആ കളിയും ഫേയ്മസ് ആണ് അങ്ങനേ ഓരോന്ന് ഓരോന്ന് അത് നമ്മുടെ പാരമ്പര്യം ആയിട്ട് കൈമാറി വന്നതാണ് അത് വരും തലമുറയിലേക്ക് കൊടുക്കുമ്പോൾ അവർ അത് കൈമാറി കൈമാറി വരുമ്പോൾ നമ്മുടെ സ്ഥലവും കളിയും എന്താ പറയുക നശിച്ചു പോകാതെ അത് മുന്നോട്ട് പോയ്ക്കൊണ്ടേയിരിക്കുകയാണ്